എൻ്റെ എ എഴുത്തുകാരനുണ്ടാകുന്ന ഉത്കണ്ഠയും തൻ്റെ കഴിവുകളെ കുറിച്ചുള്ള സംശയവും സ്വാഭാവികമാണ് അപ്പം നമ്മളീ കുഞ്ഞിലെ കൊച്ചായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഒരാൾക്ക് എഴുതാനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലാക്കുക വളരെ ഇമ്പോർട്ടൻറ്റാണ് പിന്നാ കഴിവ് അവർക്കൊണ്ട് അപ്പം അവരെ മാക്സിമം മത്സരങ്ങൾക്ക് പങ്കെടുപ്പിക്കാൻ അവരെഴുതുന്ന കാര്യങ്ങൾ നന്നായിട്ടുണ്ടെങ്കിൽ നന്നായെന്നു പറയാ കുറവുകളെങ്ങനാണ് അവർക്കത് പരിഹരിക്കാമെന്നൊരു വായനക്കാരൻ്റെ സൈഡിന്നുള്ളൊരു അഭിപ്രായം കൂടി എഴുത്തുകാരനെ അറിയിക്കുന്നതും ഭയങ്കര അത്യാവശ്യമുള്ളൊരു കാര്യമാണ് എന്നാലല്ലേ എഴുത്തുകാരന് അവരുടെ ഒരു രീതി മനസ്സിലാകുള്ളൂ വായനക്കാരുടെ ഒരു രീതി മനസ്സിലാകുള്ളൂ പിന്നെ നിങ്ങൾ എൻ്റെ എഴുത്തുകളിൽ കൂടുതലായിട്ടും ആരുടെയും പിന്തുണയങ്ങനെ ലഭിക്കാറില്ല എങ്കിൽ തന്നെയും പ്രതികരണങ്ങൾ നല്ലതായിട്ട് ആൾക്കാരിൽ നിന്നു ലഭിക്കാറുണ്ട് അതൊരു വലിയൊരു പ്രചോദനമാണ് മുന്നോട്ടു പോകാൻ